നവജാതശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സ്വീകരിക്കുന്ന നടപടികളില് പ്രധാനപ്പെട്ടത് ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളേര്പ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതല് സംസ്ഥാനത്ത് കൂടുതല് വനിതാശിശു സൗഹൃദ ആശുപത്രികള് സ്ഥാപിക്കുന്നത് വഴി വനിതകളുടെ അതായത് പ്രെഗ്നെന്റായ ലേഡിസിന്റേയും ശിശുക്കളുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതല് ഊന്നല് കൊടുത്തുകൊണ്ടുള്ള പ്രവര്ത്തനങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് രണ്ടാമതായിട്ടുള്ള കാര്യം അവര്ക്ക് ഈ വനിതകള്ക്കും ശിശുക്കള്ക്കും കൂടുതല് ന്യൂട്രീഷനായ ഫുഡ്ഡ് കൊടുക്കുകയെന്നുള്ളതാണ് അത് സര്ക്കാർ തന്നെ വിവിധ അംഗന്വാടികള് വഴിയും പഞ്ചായത്തു വഴിയും അതായത് ഈ പ്രെഗ്നെന്റായിരിക്കുന്ന ലേഡീസിനും കൊച്ചുകുട്ടികള്ക്കുമുള്ള ന്യൂട്രീഷന്ഡ് ഹൈലീ ന്യൂട്രീഷന്റായിട്ടുള്ള ഫുഡ്ഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുവഴി ആരോഗ്യമുള്ളൊരു തലമുറയെ വാര്ത്തെടുക്കാനായിട്ട് ഉള്ളൊരു പ്രയത്നത്തിലാണ് നമ്മുടെ സര്ക്കാർ നമുക്കറിയാം പണ്ടുകാലത്തുള്ളതുപോലെയുള്ള അല്ല നമ്മുടെ ആധുനിക രീതിയിലുള്ള പല ആശുപത്രികളും ലോകോത്തര നിലവാരത്തിൽ തന്നെയുള്ളവയാണ് അതുകൊണ്ടുതന്നെയാണ് നമ്മുടെ ഇടയിൽ വനിതാശിശു മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽത്തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള കുറവ് അടുത്തകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാര്യമെന്നു വെച്ചുകഴിഞ്ഞാല് വാക്സ്സിനേഷനാണ് കുട്ടികള്ക്കുള്ള വാക്സ്സിനേഷന് പണ്ട് കാലത്തൊന്നും അത്ര സുലഭമായിരുന്നില്ല എന്നാല് ഇപ്പോള് നിര്ബന്ധമായി കുട്ടികൾക്കെല്ലാം വാക്സ്സിനേഷനെടുക്കണമെന്ന് സര്ക്കാരിന്റെ സര്ക്കുലറുകളുണ്ട് അതുകൊണ്ടുതന്നെ പരമാവധി ആശുപത്രികളിലും വാക്സ്സിനേഷന് സൗകര്യങ്ങളേര്പ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ മികച്ച രീതിയിൽത്തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികള്ക്കും വാക്സ്സിനേഷന് നിര്ബന്ധവും സൗജന്യവുമായ വാക്സ്സിനേഷനാണ് നമ്മുടെ സര്ക്കാർ നല്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോര്ട്ടന്റായിട്ടുള്ളൊരു കാര്യമാണ് പരിസരശുചിത്വമാണ് കാരണം നമ്മുടെ നാട്ടിലെ പല രോഗങ്ങള്ക്കും കാരണം നമ്മുടെ പരിസരം ശുചിത്വമില്ലാത്ത നമ്മുടെ പരിസരം തന്നെയാണ് അപ്പം വൈ മഴക്കാലങ്ങളായ ആകുന്നതോടെ മഴക്കാലജന്യ രോഗങ്ങൾ ഒരുപാട് പടർന്ന് പിടിക്കാറുണ്ട് വെള്ളത്തിലൂടെയും വായുവിലൂടെയുമൊക്കെ പടരുന്ന ഒരുപാട് രോഗങ്ങള്ക്കെതിരെ പ്രതിരോധശേഷി വളർത്താനായിട്ട് ആദ്യം തന്നെ നമ്മള് ചെയ്യേണ്ട പ്രക്രിയയെന്ന് പറയുന്നത് മഴക്കാലപൂര്വ്വശുചീകരണം തന്നെയാണ് നമ്മുടെ റോഡുകളും തോടുകളും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതുവഴി പകര്ച്ചവ്യാധികള് പകരുന്നത് നമുക്ക് തടയാന് സാധിക്കുന്നു അതുകൊണ്ടുതന്നെ പകര്ച്ച ഏറ്റവുമധികം നമുക്കറിയാം ഇമ്മ്യൂണിറ്റി പവറേറ്റവും കുറവുള്ള ഒരു ഒരു ആള്ക്കാരാണ് കുട്ടികള് എന്നുപറയുന്നത് അപ്പോൾ അവര്ക്ക് പെട്ടെന്ന് രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിഹീനമാണെങ്കില് എല്ലാവിധ പകര്ച്ചവ്യാധികളും അവര്ക്ക് പെട്ടെന്നുതന്നെ പകരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ പരിസരം ശുചീകരിക്കുന്നതുവഴിതന്നെ നമുക്ക് ഈ കുട്ടികളിലേക്ക് ഇത് പകരുന്ന നമുക്ക് തടയാൻ പറ്റും അതോടൊപ്പം നമുക്ക് ആധുനിക രീതിയിലുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും നമുക്കിപ്പം നിലവിലുണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ അമീബിക് മസ്തികജ്വരം എന്നുള്ള ആ ഒരസുഖമുണ്ടായി അത് ലോകത്തിൽത്തന്നെ റെയ്റായിട്ടുള്ളൊരു അസുഖമാണ് പക്ഷേ നമുക്ക് ഇപ്പോളതിന് വാക്സ്സിൻ അവൈലബിളാണ് മരുന്ന് അവൈലബിളാണ് അപ്പം നമുക്ക് വിദേശത്തുനിന്ന് നമ്മളതിന് മരുന്നെത്തിക്കുന്നുണ്ട് നമ്മളിപ്പം ഫലപ്രദമായി അതിന് ചികിത്സകള് ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ നമുക്കറിയാം നിപ്പ വൈറസ് രോഗങ്ങൾ വരുന്നുണ്ട് ഒരുപാടിപ്പം ഈ അടുത്തകാലത്തായിട്ട് ഇതില്നിന്നൊക്കെ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറ് കുറവായിട്ടുള്ള കുട്ടികളുണ്ട് അവരെയൊക്കെ നമ്മൾ ശുചിത്വത്തില് വളർത്തുന്നില്ല അത് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമെല്ലാം നമ്മൾ ശുചിത്വം എന്ന് പറയുന്ന സംഭവം നമ്മളെ പരിശീലിപ്പിക്കുന്നു അവരെ ചെറിയ ഏജു തൊട്ട് നമ്മളെയതില് പ്രാപ്തരാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇതെല്ലാം ഒരുവിധത്തില് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പകരാതിരിക്കുവാനും നമ്മുടെ നവജാത ശിശുക്കൾ വൃത്തിയുള്ളൊരന്തരീക്ഷത്തില് ജീവിക്കുവാനുള്ളൊരവകാശമുണ്ട് അത് നമ്മളിപ്പോളവര്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്